വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൻ്റെ ഗവേഷണ മേഖലകളിലേക്കു നൽകുന്നുണ്ട് അപ്പോൾ ഒരുപാടു സർവ്വകലാശാലകളൊക്കെ ഒരുപാട് എന്താ പറയുക അംഗീകാരങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് ഗവേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻറ്റേതായ പ്രോത്സാഹനം അങ്ങനെയൊക്കെ നൽകാറുണ്ട് പിന്നേ പിന്നെ അതുപോലെത്തന്നെ ഒരുപാടു ബിസ്നസ്സ് കാര്യങ്ങളൊക്കെ ബിസ്നസ്സിനെക്കുറിച്ചും അതുപോലെത്തന്നെ ചെറു ചെറിയ പത്താം ക്ലാസ് പത്താം ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയത്തുതന്നെ നമുക്കോരോ അതിൻറ്റേതായ വ്യവസായത്തിനെക്കുറിച്ചും അതുപോലെത്തന്നെ എൻജിനീയറിങിനെക്കുറിച്ചും അതുപോലെത്തന്നെ ബിസ്നസ്സിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതിലൂടെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു അ ധാരണ കിട്ടുകയും പിന്നീട് അവർ ഓരോ മേഖലയിലേയ്ക്ക് മാറുകയും അതുപോലെത്തന്നെ ഓരോ മേഖലയിൽ ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പ്രോത്സാഹനം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ